മത്സ്യ ബദ്ധനമായി പറ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മത്സ്യ കൊ മത്സ്യകുഞ്ഞുങ്ങളെ നമ്മൾ മേടിച്ച് കുളത്തിലിട്ട് വളർത്തുക അതിന് ഉൽപാദനം ഉത്പാദനക്ഷമത അതായത് അതിന് വലുതായി അതിനെ മാർക്കെറ്റിൽ കൊണ്ട് കൊടുക്കുക അതിൻ്റെ കുഞ്ഞു അതുവെല്ലാം നല്ല ഒരു ഒരു ഉപജീവനമാർഗത്തിനും പ്രോഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് മത്സ്യബദ്ധനത്തിൽ പെട്ടിരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇതിനുള്ളിലെ ഇതിനുള്ള ഇതിനുള്ള ദോഷവശങ്ങൾ ഇത് വലിയ കൊ മത്സ്യങ്ങളെ നമ്മൾ വിൽക്കുകയും ചെറിയതായിട്ടുള്ള ഈ വെള്ളം പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വലിയ മത്സ്യങ്ങളെ മാത്രം നമ്മൾ തിരഞ്ഞ് പിടിക്കുകയും ചെറിയ മത്സ്യങ്ങൾ ചിലതൊക്കെ ഒരു നയൻ്റി പേഴ്സെൻ്റെജൂം ചത്തുപോകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെല്ലാം വന്ന് കഴിയുമ്പോൾ അതായത് വംശ വർധനവിന് അതെ പരിത അതായത് അതിനൊരു ഒരു കുറവ് വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് പരിധസ്ഥിതി അ സംബന്ധിച്ചോളം പറയുമ്പോൾ ജലത്തിൻ്റെ കാഠിന്യം കൂടുമ്പോൾ ജലത്തേ അമ്ലം അംശം കൂടുമ്പളും മത്സ്യങ്ങൾ ചത്തുപോകാറുണ്ട് അത് അതിനൊരു ഉദാഹരണമാണ് ഞങ്ങളടുത്തൊരു കമ്പനിലെ ജലമലിനികരണത്തിൻ്റെ കുഴൽ പുഴയിലേക്ക് വിടുകയും അതിലുള്ള ആ പുഴയിലൊഴുകി ആ മാലിന്യം ഒഴുകി പോവുന്ന സ്ഥലത്തൊണ്ടായിരുന്ന ചെറുമത്സ്യങ്ങളും മറ്റും അത് ചത്തു പൊങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാലിപ്പോൾ ഇതിനെ കൊണ്ടാവും ജല മലിനികരണത്തിൻ്റെ കാരണം കൊണ്ടാണ് അത് സംഭവിച്ചെന്നുള്ള നിഗമനമാണ് എൻ്റെയൊരു കണക്കുകൂട്ടൽ